ഇപ്പോൾ എന്റെയൊക്കെ ചെറുപ്പത്തിലെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്ത കാര്യങ്ങൾ എന്താണെന്നു വെച്ചു കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ പാടത്തും പറമ്പിലും അതുപോലെ ഉള്ള ഓരോ സ്ഥലങ്ങളിൽ കൂടി നടന്ന് ക്രിക്കറ്റ് കളിക്കുകയും സാറ്റ് കളിക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു ഒളിച്ചു കളിക്കുകയൊക്കെ ആയിട്ടും ചെറിയ ചെറിയ പിള്ളേർ കളിക്കുന്ന പോലെ ഉള്ള കളികളും ചെറിയ ചെറിയ കളികളും കാര്യങ്ങളൊക്കെയായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ഇതുതന്നെയായിരിക്കും കാരണമെന്താണെന്നു വെച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഓരോ തലമുറകളും ഫോൺ കാര്യങ്ങൾ ആയിട്ടു നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിരുന്നത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തു കൊണ്ടിരുന്നത് ഇതുപോലെയുള്ള ഓരോ കളികളും കാര്യങ്ങളൊക്കെയായിട്ടും അടുത്തുള്ള വീട്ടി വീടിൻ്റെ അടുത്തുള്ള പിള്ളേരും കാര്യങ്ങളും എല്ലാവരും കൂടി കൂടിയും അതുപോലെ റിലേറ്റീവ്സ് കാര്യങ്ങളാണെങ്കിലും അവരൊക്കെ വരുമ്പോൾ അവരെല്ലാവരും കൂടിയിട്ടൊക്കെ ആയിരുന്നു നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ തലമുറകളെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോൺ കാര്യങ്ങളുമായിട്ട് ഫുൾ ടൈം അതിൻ്റെ പുറകിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ പഴയ തലമുറ കാര്യങ്ങൾ ആണെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്തു കൊണ്ടിരുന്നത് അവരുടേതായ നാട്ടിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടും ബാറ്റ് ഉണ്ടാക്കിയും മടല് വെട്ടി ബാറ്റ് ഉണ്ടാക്കി ക്രിക്കറ്റ് കളിക്കുകയും അതുപോലെ ക്രിക്കറ്റ് കളിക്കുകയും കാര്യങ്ങളായിട്ട് ആണെങ്കിലും അതുപോലെ ഒളിച്ചു കളിക്കുക കാര്യങ്ങളും ഒക്കെയായിട്ടും അങ്ങനെ സമയം ഇങ്ങനെ ഇങ്ങനെ ചിലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുകയും അതുപോലെ ഈ പാള ഒക്കെ എടുത്തിട്ട് അതിൻ മേൽ ഇതു ആക്കി കേറിയിരുന്ന് വലിച്ചു കൊണ്ടു പോവുകയും അങ്ങനെ ഓരോരോ കളികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സമയം കളയുമായിരുന്നു അതൊക്കെ പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയയും കാര്യങ്ങളായിട്ടാണെങ്കിലും നോക്കുമ്പോളും ഇപ്പോഴത്തെ തലമുറയെ വെച്ചു നോക്കുകയാണെങ്കിലും നമ്മൾക്കത് അത്രയും പ്രിയപ്പെട്ട കാര്യങ്ങളാണ് കാരണം നമുക്ക് പറയാൻ ഒരു ലൈഫും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എങ്ങനെ ഇതായി വന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റേതായ കുറേ കാര്യങ്ങളും ഒക്കെയുണ്ട് പക്ഷേ ഇപ്പോഴത്തെ തലമുറകൾ ഒക്കെ അങ്ങനത്തെ കാര്യം ഇതായ കാര്യങ്ങളോ കാര്യങ്ങൾ ഇത് ഒന്നും ഒന്നും തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് ഫോൺ കാര്യങ്ങൾ മാത്രം ആയിട്ട് അങ്ങനെ ഒതുങ്ങി കൂടി പോവുകയാണ്